കായിക വികസനം എന്ന് പറയുമ്പം കൂടുതലും വേണ്ടത് ഒന്നില്ലെങ്കിൽ ഈ സിറ്റി ഗ്രാമ പ്രദേശങ്ങൾ അല്ലെങ്കിൽ സ്കൂള് സ്കൂള്കൾ എന്ന് പറയുമ്പം ഇപ്പം കുറച്ച് കാലമായിട്ടാണ് കായികം വികസിച്ച് വന്ന് കൊണ്ടിരിക്കുന്നത് പണ്ട് കാലങ്ങളിൽ സ്പോട്സ്സ് നടത്തുന്ന സമയത്ത് ആണെങ്കിലും അതിന് വേണ്ട സാധനങ്ങൾ ഒന്നും ഉണ്ടാവില്ലായിരുന്നു ഇപ്പം എന്ന് പറയുമ്പം മിക്ക സ്കൂള്കൾൽ പന്ത് കാര്യങ്ങൾ എല്ലാം ഉണ്ടാകും പി റ്റി സമയത്ത് അതൊക്കെ എന്തായാലും നിർബന്ധമാക്കി പണ്ട് കാലത്തൊന്നും ഉണ്ടാവില്ല ഇപ്പപ്പോയി സാറ്മാരുടെയോ അല്ലെങ്കിൽ ടീച്ചേഴസിൻറ്റെ ആരുടെങ്കിലും കാലിങ്ങനെ പിടിക്കണമായിരുന്നു സാധാനം കിട്ടണമെങ്കിൽ ഇപ്പം എന്ന് പറയുമ്പം ഇന്ന ക്ലാസ്സിന് ഇന്ന സാധനങ്ങൾ എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ ഉണ്ടാവും അതുകൊണ്ട് കുഴപ്പമില്ല ഇപ്പം ഉള്ള സർക്കാർ അത്യാവശ്യം ഇങ്ങനെത് ആകുന്നു അതേപോലെ ക്ലബ്ബുകളൊണ്ടാവും ക്ലബ്ബുകളിലോട്ടും സർക്കാർ കുറച്ച് പന്ത് സാധനങ്ങൾ അവർക്ക് വേണ്ട എന്താ പറയാ ക്രിക്കറ്റിന് ആവശ്യമുള്ള ക്രിക്കറ്റ് ബാറ്റ് കാര്യങ്ങൾ ഒക്കെ ഇങ്ങനെ കൊടുക്കുമായിരുന്നെങ്കിൽ കായികം ഇപ്പം കുറച്ച് വികസിക്കും അല്ലെങ്കിൽ ഇപ്പോൾ എന്താ ആരും ഒരു പണിക്ക് കായികത്തിൽ സ്പോട്സ്സിലൊന്നും ഏർപ്പെടാണ്ട് ഇങ്ങനെ നിൽക്കും അതിലും ഭേദം ഇപ്പം ഉള്ള ഇത് വെച്ചിട്ട് ഓരോരുത്തർക്ക് ഇങ്ങനെ കൊടുക്കുക ആണെങ്കിൽ അവരവരുടേതായ കാര്യങ്ങൾ ഒക്കെ കളിച്ച് കായിക മേളകളിലും അങ്ങനൊക്കെ പോയി അവരുടെ കഴിവുകൾ അവർ പരമാവധി അവർ യൂസ്ഫുൾ ചെയ്ത് അവർ നിൽക്കും അതിന് സർക്കാർ കുറച്ച് ഫണ്ട് അങ്ങനെ ഉള്ള സാധനങ്ങൾ എന്തേലും ഫണ്ട് ആണെങ്കിൽ ഫണ്ട് അങ്ങനെ കൊടുക്കുവാണ് ഇല്ലെങ്കിൽ അവർക്ക് ആവശ്യമുള്ള സാധനങ്ങൾ അങ്ങനെ കൊടുക്കുക ആണെങ്കിൽ പല കുട്ടികളും ഇപ്പം ഫണ്ടില്ലാത്ത കൊണ്ടായിരിക്കും ഫുട്ബോളങ്ങനെ ഉള്ള കാര്യങ്ങൾ കളിക്കാൻ പോകാത്തത് അതൊക്കെ കളിച്ച് ഫണ്ടില്ലാത്ത അവർ ആയിരിക്കും ചിലപ്പം അടിപൊളിയായിട്ട് കളിച്ച് ഇപ്പം അത്യാവശ്യം നല്ല ടീമിലക്കെ ചെന്ന് കയറി അത്യാവശ്യം നമ്മുടെ നാടിന് വേണ്ടിയിട്ട് അവരായിരിക്കും ഉണ്ടാകുള്ളൂ ഏറ്റവും അവസാനം അത് കൊണ്ടാണ് പറയുന്നത് ഉള്ളത് എങ്ങനേലും ഒക്കെ ഈ കുട്ടികളിൽ എത്തിക്കുക അവരുടെ കായികം കാര്യങ്ങളും നല്ലതാക്കുക അങ്ങനെ ആക്കി കഴിഞ്ഞാൽ അവർക്ക് അവരുടെ സ്കൂള്കൾക്കും നാട്ടുകാർക്കുമാണ് ഏറ്റവും കൂടുതൽ യൂസ്ഫുള്ള് ഐ മീൻ ഓരോരുത്തർ അറിഞ്ഞ് ഇങ്ങനെ വരുക ഉള്ളു സർക്കാർ ഇങ്ങനെ ഓരോരോ നല്ല നല്ല കാര്യങ്ങൾ ചെയ്യുവാണെങ്കിൽ കുറെ പേർക്ക് നല്ല നല്ല ഭാവി എത്തി ഭാവീലും അവർക്ക് ഉന്നത ഉന്നത സ്ഥലങ്ങളിൽ എത്തിച്ചേരാനും പറ്റും